കരകൗശല വസ്തുക്കൾ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാല് ഞാൻ ഒത്തിരി ചെയ്യാറുണ്ട് ഈ പാഴ് വസ്തുക്കൾ നമ്മള് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഗ്ലാസ് ബോട്ടിൽ ആയാലും ബോട്ടിൽ പെയിൻറ്റ് ബോട്ടിൽ ആർട്ട് എന്ന് പറഞ്ഞ ഒരു ഇത് ഉണ്ട് അത് പെയിൻറ്റ് ചെയ്ത് നല്ല ഡെക്കറേറ്റീവ് ആയിട്ട് നമുക്ക് വയ്ക്കാം പിന്നെ അതിൽ തന്നെ കലങ്കാരി പ്രിൻറ്റ് നമുക്ക് ചെയ്യാം പിന്നെ ക്രേപ്പ് പേപ്പർ ഒക്കെ വെച്ച് നമുക്ക് അതിന് ഡെക്കറേറ്റ് ചെയ്യാം ബോട്ടിലിനെ ചിരട്ട ഗ്ലാസ് ബോട്ടിൽ ആണെങ്കില് ചിരട്ടയുടെ കഷണങ്ങൾ ഉണ്ടായാൽ എടുത്ത് നല്ല സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചു വൃത്തിയാക്കി ബോട്ടില് ആദ്യം നമ്മള് ഒരു ബേസ് കോട്ട് അടിച്ചിട്ട് അതില് ചിരട്ട ഒട്ടിച്ച് പിന്നെ അതിലെ വാർണിഷ് ഒക്കെ അടിച്ചു നല്ല മിനുസമാക്കി നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് ചണം കൊണ്ടുള്ള ചരട് ചുറ്റി അത് ചെയ്യാം ആ ചരടിൻ്റെ പുറത്ത് വേണമെങ്കിൽ പല തരത്തിലുള്ള കളർ കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഗ്ലാസ് പെയിൻറ്റ് ഉപയോഗിച്ചും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം അത് നല്ല രസം ആയിരിക്കും പിന്നെ ഫ്ലവർ വേസ് പോലെ ഉണ്ടാക്കാം ഫ്ലവർ വേസ് ഉണ്ടാക്കി വെച്ചിട്ട് അതില് ഒരുപാട് തരം പൂക്കള് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കമുകിൻ പാള വെച്ച് തന്നെയാണെങ്കിലും നമുക്ക് റോസാപ്പൂ പോലെയും ത്യുലിപ്സ് അങ്ങനെ ഉള്ള കുറെ തരം പൂക്കള് നമുക്ക് ഉണ്ടാക്കാം പലതരത്തിലുള്ള പൂക്കള് നമുക്ക് ഉണ്ടാക്കാം കമുങ്ങിൻ പാള വച്ച് ഉണ്ടാക്കിയിട്ട് അതില് വിവിധതരം കളർ കൊടുത്ത് പിന്നെ അതിൻ്റെ നടുക്ക് നല്ല കെട്ട് കമ്പി പോലത്തെ കുഞ്ഞു കമ്പിയിലെ മുത്തു വെച്ച് അതിൻ്റെ നട നടുക്ക് വയ്ക്കാം പിന്നെ ക്രെ പേപ്പർ വെച്ചും നമുക്ക് ഒരുപാട് തരം പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ മുത്തു വച്ച് നമുക്ക് അതിനെ മുത്ത് ഒട്ടിച്ചും ഇതിനെ ഒരുപാട് ഡെക്കറേറ്റ് ചെയ്തു വയ്ക്കാം പിന്നെ ചിരട്ട വെച്ച് തന്നെ നല്ല പോളിഷ് ചെയ്ത് എടുത്ത് ചിരട്ട വെച്ച് ഫ്ലവർ വേസ് ഉണ്ടാക്കാം ഒരുപാട് തരം ഭംഗിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം ആമയുടെ ഷേപ്പില് ഉണ്ടാക്കാൻ പറ്റും ക്ലേയും എല്ലാം വച്ച് ആമയുടെ ഷേപ്പിൽ ഉണ്ടാക്കാം എന്നിട്ട് പെയിൻറ്റ് ചെയ്യിത് വെക്കാം നല്ല ഒരു ഭംഗിയായിരിക്കും അതുപോലെ മുത്തു വെച്ച് നമുക്ക് ഒട്ടിച്ചു പലതരം പല കളറിലുള്ള മുത്തുകള് വച്ച് ഒട്ടിക്കാം ഒരേ തര ഒള്ള കളറില് മുത്തുകൾ ഉപയോഗിക്കാം അങ്ങനെ നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ മണല് മണല് ബോട്ടിലിൽ മ്മ് നല്ല പശ വച്ചിട്ട് അതിൽ മണൽ ഇങ്ങനെ ഇട്ട് അതിൽ പെയിൻറ്റ് ചെയ്തു വെക്കാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എൻ്റെ വീട്ടിൽ ഞാൻ ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്